യോഗ ലോകത്തിന് തന്നെ അഭിസംബോധന ചെയ്തത് ഭാരതീയരാണ് ഇപ്പോൾ പതഞ്ജലി മഹർഷി ആണ് യോഗ എന്ന മഹാ വിശ്വ മായ ആ കലയെ നമുക്ക് കാണിച്ചു തന്നത് യോഗ നമുക്കാണ് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം യോഗ ഗുരുക്കന്മാര് നമുക്കിപ്പോൾ ഭാരതത്തില് ഇന്ത്യയിലുണ്ട് പ്പൊ അതിലറിയപ്പെടുന്ന ആൾക്കാര് പഴയ തലമുറയിൽ പെട്ടതാണ് സ്വാമി ശിവാനന്ദ മഹർഷി മഹേഷ് യോഗി അതുപോലെ ഇപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരെന്നാണെങ്കിൽ പുതിയ തലമുറയിൽ പെട്ട ബാബാ രാംദേവ് അങ്ങനെ അതൊക്കെ നമക്ക് പറഞ്ഞുകഴിഞ്ഞ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ ഇവിടെ അടുത്ത് അറിയപ്പെടുന്നകഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ എനിക്ക് പഠിപ്പിച്ച് തന്നതൊരു വിജയേട്ടനാണ് എനിക്ക് യോഗ പഠിപ്പിച്ചുതന്നത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹതിനേകദേശം ഒരു എഴുപത്തഞ്ച് വയസ്സിനടുത്ത് പ്രായമുണ്ടാവും എന്നാലും അദ്ദേഹം ചെയ്യുന്ന യോഗ ഇന്നിപ്പോൾ നമുക്ക് കണ്ടുകഴിഞ്ഞാ നമ്മൾ ശെരിക്കും ഞെട്ടിപ്പോവും ആൾടെ ശീർഷാസനം അതുപോലെ ആള് ചെയ്യുന്ന യോഗ മുദ്രകള് ആൾടെ ആത്മസമർപ്പണം അതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഒരു എന്താ പ്രചോദനം തന്നെ ആണ് അവര് ചെയ്യുന്ന ആ കറക്റ്റ് എങ്ങനെ ആണോ അത് ചെയ്യണ്ടത് അതിൻ്റെ അൾട്ടിമേറ്റ് അതായത് കറെക്റ്റ് ആക്കുറേറ്റ് അതിലിനിയൊരു തെറ്റ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയില് അത്രയും പെർഫെക്ഷനോട് കൂടിട്ടാണ് അവര് ചെയ്യണത് കാരണം എന്നുവെച്ചാൽ അവര് ചെയ്ത് ചെയ്ത് പ്രാക്റ്റീസ് ആയതിൻ്റെ ഒരു ഇത് നമുക്കതില് കാണാൻ പറ്റും അവര് നമുക്ക് എല്ലാം നമുക്കിപ്പം ആ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയാണെങ്കിലും വിജയേട്ടൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര സിമ്പിൾ ആയിട്ടാണ് അത്രയും സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുവോ അത്രയും സിമ്പിൾ ആയിട്ടെടുക്കും പെട്ടെന്ന് കാര്യങ്ങള് മനസിലാവും അങ്ങനെ വിജയേട്ടൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർക്ക് നല്ലൊരു പ്രചോദനമാണ് അതുപോലെ എനിക്കും നല്ലൊരു പ്രചോദനം ആണ്